എന്റെ ഗാനാലാപന രീതിയെങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് പാട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കരിഷ്ടായത് കൊണ്ടന്നെ എനിക്ക് ഞാന് പാടുവായിരുന്നു ഞാന് കവിതകളും ചെറിയ ചെറിയ പാട്ടുകളും കുഞ്ഞുക്കുഞ്ഞ് കവിതകളും അയ്യപ്പപണിക്കരുടെ തത്തമ്മ എന്നുള്ള കവിതകൾ അതൊക്കെ കുഞ്ഞിക്കുഞ്ഞി ചെറിയ കുട്ടികള്ക്ക് പാടാന് പറ്റിയ പാട്ടുകളും കവിതകളുമാണ് അങ്ങനെ ഒരുദിവസം മൂന്നാം ക്ലാസ്സിലൊ നാലാം ക്ലാസ്സിലൊ പഠിക്കുമ്പാണോന്നറിയില്ല എന്റെ ഏട്ടന് പാട്ടു പാടും അപ്പോൾ ഏട്ടന്റെ കയ്യിൽ നിന്ന് അമ്മ ആ കവിത റെക്കോര്ഡ് ചെയ്ത് വാങ്ങീട്ട് എനിക്ക് പഠിപ്പിച്ചന്നു എനിക്ക് പഠിപ്പിച്ചന്നപ്പോൾ അച്ഛനു അമ്മയും സാധാരണ പാടുന്ന പോലെയെന്ന് വിചാരിച്ചിട്ട് എന്നെ സ്കൂളില് പാടാന് വിട്ടു അവിടെ നിന്ന് ഞാന് സ്റ്റേജിൽ നന്നായി പാടി അതുപോലെ അടുത്ത വര്ഷത്തെ ലളിതഗാനം സംഗീത മത്സരത്തിലും ഞാന് നന്നായി പാടി എനിക്ക് ഫസ്റ്റ് കിട്ടേം ചെയ്തു അപ്പോൾ ജട്ജസ്സായിരുന്നത് സ്കൂളിലെ ടീച്ചേസ്സന്നെയായിരുന്നു സ്കൂളിലെ ടീച്ചേസ് അമ്മേനടുത്ത് പറഞ്ഞു അമ്മേം അതേ സ്കൂളില് ടീച്ചറായിരുന്നത് കൊണ്ട് ടീച്ചേസ്സിനെന്റെ അമ്മയെ പരിചയമുണ്ടായിരുന്നു അപ്പം അമ്മയെ അമ്മേനെ ഒരു ദിവസം ടീച്ചേസ്സ് വിളിച്ചിട്ട് പറഞ്ഞു മോൾ നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോൾ പാട്ട് പഠിക്കാന് ചേര്ക്കണം അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരണം അംഗീകാരമായിരുന്നു ലൈഫിൽ അത്രേം വലിയൊരു അംഗീകാരം മുന്നേ എനിക്ക് കിട്ടാനില്ല അത്രേം ചെറിയ പ്രായത്തില് കിട്ടാനില്ല കാരണം ആ ഒരു പ്രായത്തിലെന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പം ഈ നിലയില് നില്ക്കുന്നത് അന്ന് തന്നെ എന്റച്ഛനും അമ്മയും എന്റെ വീട്ടിന്റ്റടുത്തുള്ള ഒരു മ്യുസിക് ടീച്ചറിനെ കണ്ട് എവിടെയാണ് പാട്ട് പഠിക്കാന് നല്ലതെന്ന് അന്വേഷിക്കേം എന്റെ വീടിന്റെടുത്ത് ചാലാന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിസരി കലാക്ഷേത്രംന്ന് പറഞ്ഞൊരു മ്യുസിക് ഇന്സ്റ്റിട്ട്യൂട്ടുണ്ട് അവിടെക്കൊണ്ട് ചേര്ക്കാനും ടീച്ചറ് പറഞ്ഞു അങ്ങനെ എന്നെ അഞ്ചാം ക്ലാസ്സില് പഠിക്കുമ്പോൾ നാലാം ക്ലാസ്സില് പഠിപ് പഠിക്കുമ്പോള് അമ്മയും അച്ഛനും എന്നെ അവിടെക്കൊണ്ട് ചേര്ത്തു അതുകൊണ്ടാണ് എന്റെ സംഗീതം ഇത്രയും മെച്ചപ്പെട്ടത് ഞാനിന്ന് ഈയൊരു നിലയിലെത്തിയത് അതുകൊണ്ടന്നെ പല മത്സരങ്ങളിലും പല പരിപാടികളിലും സംഗീത കച്ചേരികളിലും പങ്കെടുക്കാനെനിക്ക് സാ സാധിച്ചു അതെന്റെ ഭാഗ്യമായിട്ടാന്ന് ഞാന് കരുതുന്നത് അങ്ങനെയൊക്കെ സാധിച്ചത് കൊണ്ട് ഞാൻ ആണ് ഞാനിന്ന് ഇത്ര നന്നായി എന്റെ തൊണ്ട ഉപയോഗിച്ച് പാടാന് പറ്റുന്നത് നന്നായി സാധകം ചെയ്താൽ മാത്രമേ നല്ല രീതിയില് ശബ്ദം വരുകയുള്ളൂന്ന് മാഷെപ്പളും പറയാറുണ്ട് അപ്പം നന്നായി സാധകം ചെയ്യാന് വേണ്ടീട്ടച്ഛനും അമ്മയും എന്നോട് ചെറുപ്പത്തിലേ പറഞ്ഞോണ്ടിരിക്കും പണ്ടൊക്കെ മടിയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പം എനിക്കതിന് മടിയില്ല പക്ഷേ ഇപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് അതിൻറ്റൊരു ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ ഇപ്പം ഞാന് പാട്ടിനെ കുറച്ചും കൂടി സ്നേഹിച്ച് തുടങ്ങീട്ടുണ്ട് ചെറുപ്പത്തിലെ നമുക്കതിന്റെ മൂല്യോം വിലയും അറിയാത്ത പ്രായത്തിൽ സാധകം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള മടി കാണിച്ചിരുന്നു അപ്പം അന്ന് പ്രാക്ടീസ് അച്ഛനും അമ്മയും വീട്ടിലുള്ളത് കൊണ്ട് അവരെപ്പൊഴും ച് പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് എന്റെ ശബ്ദം എന്റെ തൊണ്ടയും വളരെ ഫ്ലുവന്റ്റായി മെച്ചപ്പെട്ടു വന്നു അതുകൊണ്ട് ഇന്നെനിക്ക് എല്ലാ മത്സരങ്ങളും പാടാനും ഫസ്റ്റ് കിട്ടാനും ദൈവം സഹായിച്ച് നന്നായി അവതരിപ്പിക്കാനും കഴിയുന്നുണ്ട് അതോരു വലിയൊരു ഭാഗ്യമാണ് സംഗീതം എന്ന് പറയുന്നത് വളരെ മഹത്തായൊരനുഗ്രഹമാണ് അതൊരിക്കലും ഒരു അനാവശ്യത്തിന് നമ്മൾ വിട്ട് കൊടുക്കരുത് അതായത് നമുക്കൊരു കഴിവുണ്ടായിട്ടും നമ്മളത് തിരിച്ചറിയാണ്ട് പോവരുത് നമ്മൾ പടാണ്ടും പഠിക്കാണ്ടും പോവരുത് നമ്മളറിയണം നമുക്ക് കിട്ടീട്ടുള്ള കഴിവുകളൊക്കെ നമ്മൾ പരിപോശിപ്പിക്കണം അതിന്റെറ്റവും നല്ല തലങ്ങളിലേക്കത് കൊണ്ടുപോവാന് വേണ്ടി നമ്മൾ ശ്രമിക്കണം ഞാന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയില് നടന്ന ആന്ധ്രാപ്രദേശില് വെച്ച് വിശാഖപട്ടണത്ത് ആന്ധ്രാ യൂണിവേസ്സിറ്റി നടത്തിയ സൗത്ത് സോൺ മത്സരമുണ്ടായിരുന്നു അതായത് കേരളത്തിലെ എല്ലാ യൂണിവേസിറ്റികളിൽ നിന്നും ഓരോ ഐറ്റത്തില് നിന്നും അതായതെനിക്ക് ശാസ്ത്രീയ സംഗീതരത്തിലാണ് ഫസ്റ്റ് കിട്ടിണ്ടാർന്നത് അപ്പം ആ ഐറ്റത്തില് ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് നമ്മൾ യൂണിവേസിറ്റി ലെവല് കഴിഞ്ഞ് സൗത്ത് സോണ് ലെവലിലേക്ക് ആന്ധ്രപ്രദേശിന് മത്സരത്തിന് പോയി അവിടെ വെച്ച് എ ഗ്രേഡ് നേടാനും ആ അഞ്ചാം സ്ഥാനം അതായത് സൗത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പം അവിടെ വന്ന മത്സരാര്ത്ഥികളില് അഞ്ചാം സ്ഥാനം കൈവരിക്കാനും പറ്റി അത് വലിയൊരു ഭാഗ്യമാണ് അതിനെന്റെ ടീച്ചേസും എന്റെ മാതാപിതാക്കളും എന്റെ ഫ്രണ്ട്സും വളരെയധികം സപ്പോട്ടും സഹായവും ചെയ്തു തന്നു അവരോടെല്ലാമെനിക്ക് നന്ദി പറയാനുണ്ട് അപ്പം സ്ഥിരം പ്രാക്റ്റീസ് ചെയ്താല് സ്ഥിരം സാധകം ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ സംഗീതത്തെ ഒന്നുംകൂടി പരിപോശിപ്പിക്കാന് പറ്റും നമ്മളുടെ ശബ്ദം ഒന്നുംകൂടി മെച്ചപ്പെടുത്താന് പറ്റും അതുപോലെ പല ഭ്രഗകളും അതക്കെ നമുക്ക് വഴങ്ങണമെങ്കില് നമ്മൾ സ്ഥിരം പ്രാക്റ്റീസ് ചെയ്യണം അപ്പം ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാന്ന് ഇന്നെന്റെ ശബ്ദം ഇത്രേം മെച്ചപ്പെട്ടത്